ഇനിയിപ്പം അടുത്തു നമുക്ക് സംസാരിക്കാനുള്ള വിഷയമെന്നു വെച്ചാൽ വൈദ്യുതിയാണ് ഞാൻ എൻ്റെ ഉപജീവനമാർഗ്ഗമെന്നുള്ളത് ഞാൻ സ്കൂളിൽ ഓഫീസ് അറ്റൻടായിട്ട് വർക്ക് ചെയ്യുന്നയാളാണപ്പം ഞാൻ എൻ ഞങ്ങളുടെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കമ്പ്യൂട്ടറുകളും ലാപ്പ് ടോപ്പുകളിലൊക്കെയാണ് അതുകൊണ്ടു തന്നെ നമ്മളുടെ ജോലി സംബന്ധമായി നമുക്ക് വൈദ്യുതിയെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു കാര്യം അത്യാവശ്യം തന്നെയാണ് കാരണം വൈദ്യുതിയില്ലാതായി കഴിഞ്ഞാൽ നമുക്കുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ നമ്മുടെ ഉപജീവനമാർഗ്ഗം വൈദ്യുതിയുമായിട്ട് ആശ്രയിച്ചു കൊണ്ടിട്ട് തന്നെയാണ് നടക്കുന്നത് പിന്നെ വൈദ്യുതി മുടങ്ങുന്ന സമയത്ത് നമ്മളെന്താ ഉപയോഗിക്കുന്നതെന്നു വെച്ചിട്ടുണ്ടെ നമ്മുടെ കയ്യിലുള്ള ഇൻവെർട്ടറുകൾ നമുക്കുപയോഗിച്ച് ഒരു പരിധിവരെ ആ ഒരു അതിൻ്റെ ശമനം ഇല്ലാതാക്കാം പിന്നെ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ വെളിച്ചത്തിന് വേണ്ടിയിട്ടുപയോഗിക്കുന്ന ഇൻവെർട്ടറുകളുപയോഗിക്കുന്നുണ്ട് പിന്നതുപോലെ എമർജെൻസികൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വീറ്റുകളിലൊക്കെ പണ്ടു കാലത്ത് നമ്മൾ മണ്ണെണ്ണ വിളക്കുകളുയോഗിച്ചിരുന്നു അതുപോലെ മെഴുക് തിരികളുപയോഗിച്ചിരുന്നു ഇതൊക്കെയാണ് ആദ്യകാലങ്ങളിലുപയോഗിച്ചിരുന്നതെങ്കിലും ഇന്നത്തെക്കാലത്ത് നമ്മൾ എമർജെൻസികളുണ്ട് അത് പിന്നതു പോലെ ലെഡ് സ്റ്റോറേജ് ബാറ്റ്റികളുപയോഗിച്ച് കൊണ്ടുള്ള നമുക്ക് മറ്റുള്ള ലയ്റ്റുകളുണ്ട് പിന്നതുപോലെ തന്നെ എൽ ഈ ഡി ബൾബുകൾ ഓൾ റെഡി സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള എൽ ഈ ഡി ബൾബുകളുണ്ട് പിന്നേ സോളാർ ലൈറ്റുകളുപയോഗിച്ചിട്ടുള്ള ബൾബുകളുണ്ട് അങ്ങനെ നമുക്ക് കറണ്ട് പോകുമ്പോൾ വെളിച്ചത്തിനു വേണ്ടീ നമ്മൾ പല കാര്യങ്ങളെയും ആശ്രയിക്കുന്നുണ്ട് പിന്നെ ഭൂരിഭാഗം വീടുകളിലും ഇൻവർട്ടറുകളൊക്കെ ഉപയോഗിക്കുന്നവരാണ് ഗ്രാമപ്രദേശങ്ങളിലിപ്പം ഒരു പത്തു വീടെടുത്തു കഴിഞ്ഞാൽ രണ്ടു വീട്ടിലൊ അല്ലെ മൂന്നു വീട്ടിലോ ഇൻവർട്ടറുകളായി തുടങ്ങിയിട്ടുണ്ട് കാലക്രമേണ അത് എന്താ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു മാറ്റാമ്പറ്റാത്ത രീതിയിൽ വൈദ്യുതി ഒരു ഭാഗമായിട്ടുണ്ട്